എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്തൊക്കെ സർക്കാർ പദ്ധതികളെക്കുറിച്ചാണ് നിങ്ങൾക്കറിയുക അവയിൽ നിന്ന് എന്ത് നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് അപ്പം ഞങ്ങൾക്കറിയാവുന്ന സർക്കാർ പദ്ധതിയെന്നു പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട് ജൽജീവൻ മിഷൻ പദ്ധതിയുണ്ട് കുടുംബശ്രീയുണ്ട് പിന്നെ എന്നാണ് ഈതൂട്ട് കുടുംബശ്രീയുണ്ട് പിന്നെ ഈസാപ്പുണ്ട് അങ്ങനെ ഒത്തിരി അങ്ങനങ്ങനെ ഒത്തിരി ഒത്തിരി പദ്ധതികളുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെന്നു പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നൂറ് പണിയെന്നാണ് ഒരാൾക്ക് നൂറ് പണിയെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പം അവയിൽ നിന്ന് കിട്ടുന്ന വേദനം കൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെയൊക്കെ ഒരു സേവിങ്ങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്ക് നൂറ് പണിയുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊരു നല്ലൊരു തുകയുണ്ടല്ലോ അങ്ങനെ അതിലെ അതാണ് അങ്ങനെ ഒത്തിരി എന്താണ് പണി ചെയ്ത് നമ്മൾക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ജൽ ജീവൻ മിഷനെന്നു പറയുന്നത് ഇങ്ങനെ കുടിവെള്ള പദ്ധതിയാണല്ലോ അപ്പോൾ ഇങ്ങനെ കുടിവെള്ള പദ്ധതി കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾക്ക് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക എന്നാണല്ലോ കുടിവെള്ള പദ്ധതി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതു കൊണ്ട് നല്ല അതൊരു നല്ലൊരു സംരംഭമാണ് കുടിവെള്ള പദ്ധതി എന്നു വെച്ചാൽ വെള്ളം ഇല്ലാത്ത വീടുകൾക്ക് വെള്ളം ലഭിക്കാനും പിന്നെ അതൊത്തിരി ആളുകൾക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു പദ്ധതിയാണ് കുടി വെള്ള പദ്ധതി പിന്നെ കുടുംബശ്രീയെന്നു പറയുന്നതും അതൊരു പത്ത് പേരടങ്ങുന്ന ഒരു സംഘം പത്ത് പതിനഞ്ച് പേരൊക്കെ അടങ്ങുന്നതാണ് കുടുംബശ്രീ ഈ കുടുംബശ്രീയിൽ ഈ അംഗങ്ങൾ ഓരോ ദിവസം ഓരോ ആഴ്ചകളിൽ ആഴ്ചകളിൽ മീറ്റിങ്ങ് കൂടുന്നു അതു വഴി അവർ നിശ്ചിത തുക ഇങ്ങനെ സേവിങ്ങ്സായിട്ട് നിശ്ചിത തുക അതിൽ നിക്ഷേപിക്കുന്നു ആ നിക്ഷേപിക്കുന്ന തുക സേവിങ്ങ്സായിട്ട് അവർ മാറ്റുന്നു അത് ആ ഓരോ ആഴ്ചയും അവർ സേവിക്കുന്ന നമ്മുടെ നിക്ഷേപിക്കുന്ന തുക ബാങ്കിൽ കൊണ്ടു നിക്ഷേപിക്കുന്നു അങ്ങനെ അതു കൊണ്ട് നമുക്ക് കുടുംബത്തിൽ അത്യാവശ്യം ചെറിയ ചെറിയ വരുമാനങ്ങളുണ്ടാക്കുവാനുള്ള ഒരു പദ്ധതിയായിട്ട് എനിക്ക് നന്നായി തോന്നാറുണ്ട് പിന്നെയെന്നു പറഞ്ഞാൽ ഈ കുടുംബശ്രീ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈയാൾക്കാർക്ക് ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും കുടുംബശ്രീ തൊഴിലുറപ്പ് നമ്മൾ എന്നു വെച്ചാൽ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ആരുമാരും മിണ്ടാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ആൾക്കാർക്ക് നല്ല എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂട്ടു കൂടാനും പരസ്പരം വർത്തമാനം പറയാനും പിന്നെ അവരുടെ എന്താണ് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ചുമ്മ ഇങ്ങനെ കൂട്ടുകാർ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കാനൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അതു പോലെ തന്നെ കുടുംബശ്രീയും കുടുംബശ്രീയിലെ പല പല പല ചർച്ചകളും ഈ സേവിങ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ അവരവരുടെ ഓരോരോ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബശ്രീ മാറുന്നുണ്ട് പിന്നെ ഈ ജൽ ജീവൻ മിഷനെ കൊണ്ട് കുടി വെള്ള പദ്ധതി നമുക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും വെള്ളം എത്തിക്കുക എന്നത് സർക്കാരിൻ്റെ ഒരു ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അതു കൊണ്ട് ആൾക്കാർ ധാരാളം വെള്ളം ആൾക്കാർക്ക് ധാരാളമായിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി ഒത്തിരി ഉപകരിക്കും ജൽ ജിവൻ മിഷൻ മിഷൻ പദ്ധതി അങ്ങനെ ഈ പദ്ധതികളിലൂടെയൊക്കെ നമുക്കൊത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പിന്നെ എന്തെന്നു ചോദിച്ചാൽ നമുക്കിതു കൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ തന്നെ സർ എല്ലാറ്റിലും സർക്കാരിൻ്റെ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ഉണ്ട് സർക്കാർ നമുക്ക് ഉപകാരം ചെയ്യുന്നതും ഒത്തിരി ഉപ സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഒത്തിരി നേട്ടങ്ങളും ഉണ്ട് ഒത്തിരി ദോഷങ്ങളും ഉണ്ട് അതു കൊണ്ട് അതെല്ലാം നമ്മളതനുസരിച്ച് വേണം നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തിൽ ചേർന്നാലും അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ ഉണ്ട് എന്നു നമ്മൾ വിചാരിച്ചു കൊണ്ടു തന്നെ വേണം നമ്മളതു ചെയ്യാൻ വേണ്ടി പിന്നെ എല്ലാറ്റിലും സഹകരിച്ചു പോകുന്നത് നമ്മുടെയൊരു എന്നാ പറയുന്നത് നമ്മുടെയൊരു കടമയാണ് എല്ലാറ്റിനും സഹകരിക്കുകയെന്നുള്ളത്